ഹെലോ അതെ അതെ അതെ നിങ്ങൾക്ക് എന്ത് മീൻ ആയിരുന്നു വേണ്ടത് ആവോലിക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അവോലി കിലോക്ക് വരുന്നത് മൂന്നൂറ്റി സമത്തിങ് റേറ്റ് വരുന്നുണ്ട് ഉണ്ട് അവോലിക്ക് അയികൂറക്കും ആ റേറ്റ് ഒക്കെ തന്നെ ഉണ്ട് എന്താവെച്ചാൽ ഇതു കണ്ടോ നല്ല കായലെ കരിമീൻ ഉണ്ട് കരിമീൻ കിലോക്ക് ഇരുനൂറ്റി അതായത് നമുക്ക് ചെറിയ മീൻ തൊട്ട് വലിയ മീൻ വരെ ഉണ്ട് ചെമ്പല്ലിക്ക് ഇരുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് കരിമീൻന് കിലോക്ക് നാന്നൂറ്റി അൻപത് രൂപയാണ് കിലോക്ക് വരുന്നത് ആ നല്ല ഫ്രഷ് കരിമീൻ ആണ് ഞണ്ടിന് പിന്നെ മുന്നൂറ് രൂപ ആണ് കിലോക്ക് നല്ല കടൽ ഞണ്ട് ഉണ്ട് കായൽഞ്ഞണ്ട് ഉണ്ട് ചെമീൻ നാന്നൂറ്റി എൺപത് രൂപയുണ്ട്ട്ടോ കിലോയ്ക്ക് ചെമ്മീൻ വലിയ ചെമ്മീൻ ഉണ്ട് ചെറിയ ചെമ്മീനും ഉണ്ട് ഇരുനൂറ്റി സംത്തിംഗ് രൂപയാവുള്ളൂ ചെറിയ ചെമ്മീൻ വലിയ വലിയ ചെമ്മീൻ ഉണ്ട് ചൂത നമുക്ക് പിന്ന വലിയ ചൂത ഉണ്ട് അതു പിന്ന വെള്ള ചൂത വേണോ അതോ മറ്റേ കറുത്ത ബ്രൌൺ കളർ ചൂത ഉണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയേ ഉള്ളു ചൂതക്ക് നമ്മൾ വൈറ്റ് മതി അച്ചാർ ഇടാൻ ആണോ ഓക്കെ ഓക്കെ ഓക്കെ നമുക്ക് എത്ര കിലോ വേണ്ടിവരും ചൂത ഓക്കേ ഓക്കേ നമുക്ക് അഞ്ച് കിലോ ആകുമ്പോൾ ആറായിരം രൂപ അവത്തോള്ളു ചൂതക്ക് ഓക്കെ ഓക്കെ ഓക്കേ പിന്നെ വേറെ എന്തെങ്കിലും മീൻ വേണോ ആ ചെമ്മീൻ എടുക്കാം വലിയ ചെമ്മീൻ എടുക്കാം പിന്നെ മത്തി അയില പിന്നെ ഫിലോപ്പി കുഞ്ഞു മത്തി ഉണ്ട് വലിയ മത്തി നല്ല നെയ് മത്തി ആണ് നല്ല മത്തി ആണ് ഓക്കെ ഓക്കെ അയിലയോ അയില വേണ്ടേ ആ പിന്നെ നമുക്ക് നല്ല കഷ്ണം മീൻ വരുന്നുണ്ട് വലിയത് അപ്പം നമുക്ക് പീസ് ആയിട്ടു എടുക്കം ഇപ്പം കൊണ്ടന്നെയാണ് പിന്നെ നല്ല കഷ്ണം മീൻ ആണ് അപ്പം വേണമെങ്കിൽ നല്ല ഫ്രഷ് മീൻ ആ വാള ഒക്കെ ഉണ്ട് വാളക്ക് ഒക്കെ പിന്നെ നൂറ്റി എൺപത് രൂപ ഉള്ളു കിലോക്ക് നല്ല വാള ആണ് ആ ഏട്ട ഉണ്ട് ഏട്ട ഉണ്ട് എട്ടക്ക് ഇരുനൂറ്റി ഇരുപത് രൂപ ഒരു വലിയ ഏട്ട തൂക്കം അല്ലെ എന്നാൽ ഒക്കെ ഒക്കെ നമുക്ക് ഇ വലിയ ഏട്ട വരുന്നത് മൂന്നലഞ്ചു കിലോൻ്റെ വരെ ഏട്ട് കിലോന്റെ മേലെ വരെ വരുന്നത് ഉണ്ട് ചെറിയത് വേണോ അതോ ഏറ്റവും വലിയ ഹ്യുജ് ആയിട്ടുള്ളത് വേണോ ഒക്കെ ഒക്കെ നമുക്ക് തൂക്കിയിട്ട് നമുക്ക് ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് കൊണ്ടുതരാനോ അതോ നിങ്ങൾ വന്നു കളക്ട് ചെയ്യുമോ ഒക്കെ നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ മതി ഞങ്ങൾ കൊണ്ടുത്തന്നോള്ളാം നിങ്ങളുടെ അഡ്രസ് വാട്സ്ആപ്പ് ചെയ്തേര് കേട്ടോ ഞാൻ വിളിക്കം